എനിക്കൊരുപാട് നേരമൊന്നും പാചകം ചെയ്തിരിക്കാൻ ഇഷ്ടമുള്ള ഒരു ആളല്ല ഞാൻ എനിക്കാദ്യമൊന്നും തീരെ ഇഷ്ടമല്ല പാചകം ചെയ്യാൻ പിന്നീട് ഓരോന്ന് ഓരോന്ന് നോക്കി പഠിച്ച് പാചകം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഓരോ ഓരോ ഐറ്റം ഉണ്ടാക്കാൻ ഇഷ്ടമാണ് യൂട്യൂബിലൊക്കെ നോക്കി ഒരുപാട് ഉണ്ടാക്കാറുണ്ട് കെയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ കൂടുതൽ സമയം എടുത്തതെന്നു വച്ചാൽ ഞാൻ ആദ്യമൊക്കെ ഏതൊരു ഐറ്റം പരീക്ഷിക്കുമ്പോഴും ഒരുപാടു നേരമെടുക്കും പിന്നെ കൂടുതൽ സമയം എടുത്തതെന്നു വച്ചാൽ എന്നെ വിവാഹം ചെയ്തു കൊടുത്ത വീട്ടിലാണ് ആദ്യമായിട്ടാണ് ഞാനൊരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് മട്ടൻ ബിരിയാണി അത് അറിയില്ലായിരുന്നു ഉണ്ടാക്കാൻ എങ്കിൽപ്പോലും ഓരോരുത്തർ പറഞ്ഞു കേട്ട് കുറേ സമയമെടുത്തിട്ടാണ് അതുണ്ടാക്കിയത് എറ്റവും കൂടുതൽ സമയം അതിനുവേണ്ടിയിട്ടാണ് എടുത്തത് മട്ടൻ ബിരിയാണി അതൊരു പെരുന്നാൾ ദിവസമാണ് ഉണ്ടാക്കിയത് ഒരുപാട് സമയമെടുത്തിട്ടാണ് അത് ആയത്